ആ ഡോക്ടർ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു പിന്നേ ജലദോഷവും തുമ്മലും ഒക്കെയുണ്ട് ഭയങ്കര തൊണ്ട വേദനയാണ് രണ്ട് ദിവസമേ ആയുള്ളു ഒന്ന് ചെറുതായിട്ട് മഴ നനഞ്ഞിരുന്നു അപ്പോൾ അതിന്റെയാണോ എന്നറിയില്ല വീട്ടിൽ ആർക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ പാരസെറ്റമോൾ കഴിച്ചിരുന്നു ഒന്നേ കഴിച്ചുള്ളു കുറവില്ല എന്നിട്ടും ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് ആ ഞാൻ പറയാം ആ ഓക്കെ

അപ്പോൾ ഈ യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആ ഞാൻ നാളെ വരാം എന്നാൽ ആ വരാം വയറു വേദനയൊന്നുമില്ലെ ഇപ്പോൾ തൊണ്ട വേദനയാണ് കൂടുതലായിട്ടുള്ളത് അത് മാത്രം കുറയുന്നില്ല ഇല്ലായിരുന്നു ഗുളിക കഴിച്ചപ്പോൾ പനിയൊക്കെ കുറവുണ്ട് പക്ഷേ തൊണ്ട വേദനയും തുമ്മലുമൊന്നും കുറയുന്നില്ല

ഒരു രണ്ടാഴ്ച മുമ്പ് അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്കിപ്പോൾ കുറവായി അല്ല അമ്മ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ അമ്മേടെ ബാക്കി പാരസെറ്റമോൾ ഉണ്ടായിരുന്നതാണ് ഞാൻ കഴിച്ചത് വേറെയെന്താ ജലദോഷത്തിന്റെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കഴിച്ചില്ല ആ ഓക്കെ

ആ എന്നാൽ ഞാൻ നോക്കിയിട്ട് നാളെ വരാം

ആ ഓക്കെ